മറ്റ് മതങ്ങൾ നമ്മളെ പല രീതിയിലും ആകർഷിക്കാറുണ്ട് അതിൽ എടുത്തുപറയാൻ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ അവർ എപ്പം എപ്പം പ്രാർത്ഥിക്കാൻ പോയാലും അവർക്ക് കുളിച്ച് ഒരുങ്ങി വിശുദ്ധിയോടെ അല്ലാതെ പ്രാർത്ഥിക്കാൻ പോവാറില്ല അമ്പലങ്ങളിൽ അവർ പോവുകയാണെങ്കിൽ ഏറ്റവും വൃത്തിയോടെ ഏറ്റവും വിശുദ്ധമായി ഇങ്ങനെ ചെല്ലാം അവർ പ്രാർത്ഥിക്കുന്ന ഈ ഇടം എത്ര വിശുദ്ധമായി കാത്ത് സൂക്ഷിക്കാം എന്നത് അവർ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് അത്ര തന്നെ ആത്മീയ ശുദ്ധിയും അവർ ശ്രദ്ധിക്കാറുണ്ട് ഇത്രമാത്രം ഒരുങ്ങി ഇത്രമാത്രം വിശുദ്ധിയോടെ എങ്ങനെ പ്രാർത്ഥിക്കാൻ ചെല്ലാം എന്ന് അവർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതിൽ അവരൊരു വിട്ടുവീഴ്ചയും വരുത്തുകയില്ല എത്ര വെളുപ്പാങ്കാലം ആയാലും എത്ര ഇരുട്ടിയാലും അവർ അമ്പലത്തിൽ കയറുന്നതിനു മുൻപ് ഏറ്റവും വിശുദ്ധമായേ അവർ കയറാറുളളൂ കുളിച്ച് ഒരുങ്ങി പ്രാർത്ഥനയോടെ അവർ ചെല്ലാറുളളൂ ഇല്ലെങ്കിൽ അവർ പോകാറില്ല സന്ധ്യ പ്രാർത്ഥനകൾ മുടക്കാറില്ല എന്നും വിളക്ക് കത്തിച്ചും ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് എത്ര മനോഹരം അതിൽ തന്നെ ഇത്ര വിശുദ്ധമായത് ചെയ്യാം വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും എത്ര വിശുദ്ധമായിട്ടത് ചെയ്യാം എന്നവർ ശ്രദ്ധിക്കാറുണ്ട് അപ്പോഴും അത് കുളിച്ചൊരുങ്ങി വിളക്ക് കത്തിക്കുന്ന വിളക്ക് തെളിയിക്കുന്ന ഒരു സ്ഥലം എത്ര വൃത്തിയായി സൂക്ഷിക്കാമോ അത്രയും വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ അവർ വിളക്ക് കത്തിക്കാറും പ്രാർത്ഥിക്കാറും ഉള്ളൂ അതിൽ അവർ യാതൊരു മുടക്കവും മുടക്കവും മടിയോ ഒന്നും വിചാരിക്കാതെ വിചാരിക്കാറുമില്ല അവർ എത്ര എത്ര മനോഹരമായി വീട് മുഴുവൻ തുറന്നിട്ട് വായു സഞ്ചാരം നടത്തി തൂത്തുവാരി അടുക്കി വൃത്തിയാക്കി കുളിച്ച് അത്ര വിശുദ്ധമായിട്ടേ അവർ വന്ന് പ്രാർത്ഥിക്കാറുളളൂ ഏറ്റവും ഭയത്തോടും വിനയത്തോടും കൂടിയാണ് അവർ പ്രാർത്ഥിക്കാറ് അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്ലിം സഹോദര മുസ്ലിം സഹോദരങ്ങളും അവർ അവർ അവർ അവരുടെ പ്രാർത്ഥനാ സമയം എവിടെയാണോ ഏത് സ്ഥലത്താണോ പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവർ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും അതിന് ഇപ്പോൾ അത് വെളിയിലാണെന്നോ പഠിക്കുന്ന ഇടമാണെന്നോ ജോലിയാണെന്നോ ഒന്നും അവർ വിചാരിക്കാറില്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയൊരു സമയം അവർ എങ്ങനെയായാലും കണ്ടെത്തിയിരിക്കും

എത്ര എത്ര ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെങ്കിലും അവർ എങ്ങനെയായാലും പ്രാർത്ഥിച്ചിരിക്കും അങ്ങനെത്തന്നെയാണ് അവരുടെ നോമ്പുകളും അവർ നടത്താറുള്ളത് എത്ര ബാക്കിയുള്ളവരെ പോലെയല്ല എത്ര കഠിനമായ നോമ്പുകളാണെങ്കിലും അതിൻ്റെ വിശുദ്ധിയോടെ വിശുദ്ധിയോടെ അവർ അത് പ്രാർത്ഥനയോടെയും നടത്താറുണ്ട് എത്ര എ ആ കാലത്ത് എത്രയോളം അരൂപിയിൽ അവർക്ക് നടക്കാവോ അത്രയും അരൂപിയിലും വിശുദ്ധിയിലുമാണവർ നടക്കാറുള്ളത് അങ്ങനെത്തന്നെയാണ് അവരുടെ ആഘോഷങ്ങളും എത്ര ഒരുപാട് പ്രാർത്ഥിച്ച് ആത്മീയമായിട്ടാണ് അവർ അവരുടെ ഓരോ ആഘോഷങ്ങളും നടത്തുന്നത് നോമ്പുകളും നോമ്പ് തുറക്കുന്ന രീതികളും എല്ലാം എത്രമാത്രം വിനയത്തോടും വിനയത്തോടും സാഹോദ്യര്യ ബന്ധത്തോടും കൂടെ നടത്താവോ അത്രയോളം അവർ താഴ്ന്ന് ക്ഷമിച്ച് സാഹോദര്യത്തോടെയാണവർ പല ആഘോഷങ്ങളും നടത്താറ്